ആരായിരുന്നു അതെ ആ എന്തായിരുന്നു മാഡം എത്ര ദിവസത്തേനായിരുന്നു എവിടെ നിന്നാണ് നിങ്ങൾ വിളിക്കുന്നത് എവിടെ നിന്നാണ് രണ്ട് ബൈക്ക് അത് നിങ്ങൾ എത്ര മണിക്കൂറിനാണ് അപ്പോൾ നിങ്ങൾ ദിവസം എത്ര ദിവസത്തേക്കാണ് അഞ്ചു ദിവസത്തെനാണ് അഞ്ചുദിവസത്തേന് നമുക്ക് കണക്ക് കൂട്ടി പറയാം വണ്ടിക്ക് എത്ര ഒരു ബൈക്കല്ലേ വേണ്ടത് രണ്ടെണ്ണം അതെയോ മ്മ് റെന്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അത് കിലോമീറ്ററിന് വച്ച് നമുക്ക് നോക്കാം മാഡം അത് വിഷമിക്കണ്ട നമുക്കത് വേണ്ടത് പോലെ കൈകാര്യം ചെയ്യാം നിങ്ങൾ പിന്നെ വണ്ടി നന്നായിട്ട് സൂക്ഷിക്കണം അതിനെന്തെങ്കിലും ഫാൾട്ടിങ്ങെന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് നമ്മൾ ഒന്നും ചെയ്യുകയില്ല നിങ്ങൾ തന്നെ സെറ്റ് ചെയ്ത് തരേണ്ടി വരും നമ്മൾ ഇപ്പോൾ ഒരു കുഴപ്പവും ഇല്ലാതെയായിരിക്കും വണ്ടി നമ്മൾ തരുന്നത്

അപ്പോൾ സമ്മതം ആണോ മ്മ് ആ അത് മതി അത് മതി ഈ നമ്പറിൽ വിളിച്ചാൽ മതി ഇപ്പോൾ ഞങ്ങൾ ഈ വാഹനം ഞങ്ങൾ എവിടെ കൊണ്ടുപോയി തരണം നിങ്ങൾക്ക് എവിടെ വന്ന് നിങ്ങളിവിടെ വന്ന് എടുക്കുമോ ആ ആ വേണ്ട കൊണ്ട് തരാം നിങ്ങളുടെ പ്ലേസിൽ ഞങ്ങൾ ആ ആ ഞങ്ങൾ വരുമ്പം തന്നാൽ മതി അതെ അതെ അതെ ഇല്ല ഇല്ല ഇല്ല നിങ്ങൾ അതൊന്നും ഓർത്ത് നിങ്ങൾ ടെൻഷൻ എല്ലാ പേപ്പറുകളും എല്ലാം ഒരു കുഴപ്പവും ഇല്ലാത്ത വാഹനം ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത് ആ ആ ഒരു പ്രാവശ്യത്തേത് നമ്മൾ അടിച്ചിടും പിന്നെ ഉള്ളത് നിങ്ങൾ അടിക്കണം